ജനേഷ് മാർക്കറ്റ് അല്ലെ എനിക്ക് കുറച്ച് ഫേസ് ക്രീം ഐറ്റംസ് വേണമായിരുന്നു അ ഏത് കമ്പനി ആണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഏത് കമ്പനി ജില്ലെറ്റ് കമ്പനിയുടെ ഉണ്ടൊ ജില്ലെറ്റ് ജില്ലെറ്റ് അതിനെങ്ങനെ പൈസ ഓഫറ് എനിക്കിപ്പോൾ ജില്ലെറ്റ് മതി ഞാൻ ജില്ലെറ്റാണ് യൂസ് ചെയ്യാറ് എനിക്ക് വേറെ ഒന്നും അങ്ങനെ പിടിക്കില്ല അതുകൊണ്ടാണ് അ അ

ആണൊ ഓക്കെ നല്ല സാധനമാണെന്നാണ് തോന്നുന്നത് അത് യൂസ് ചെയ്യന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരു ഇതില് ഞാൻ കളിക്കുന്ന ആൾകാരില് ഞാന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളു അ അപ്പോൾ എനിക്ക് അത് തന്നെ വേണം മസ്റ്റായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ വിളിച്ചിട്ട് എങ്ങനെ ഓഫർ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അ എനിക്കൊരു സ്പ്രേ വേണം സ്പ്രേയും വേണം പിന്നെ നമ്മളുടെ ചെറിയ ബോട്ടിൽ അത്തറില്ലെ അതുണ്ടൊ

എനിക്കൊരു മറ്റേ നമ്മളുടെ മുല്ല ഇല്ലേ മുല്ലപ്പൂൻ്റെ സ്മെല്ലുള്ള അത്തറുണ്ടൊ

എനിക്ക് എനിക്ക് വലിയ ബോട്ടില് വേണം എനിക്ക് ഗിഫ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അ ഗിഫ്റ് കൊടുക്കാൻ കട്ട് ആക്കി തരില്ലേ അതിന് വേറേ കാര്യങ്ങൾ വരില്ലല്ലൊ നമുക്ക് ഇതേ പൈസ തന്നെ അല്ലെ വരിക ആണോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വേറേ അതെ പിന്നെ സ്പ്രേ കെട്ടോ സ്പ്രേ മറക്കേണ്ട അത് എടുത്ത് വെക്കണം അതും അത് അത് ലാവെൻഡർ അത് തന്നെ മതി എനിക്ക് നോക്കട്ടെ അതെ മുല്ല തന്നെ എടുത്തൊ മുല്ല സ്പ്രേ മുല്ല തന്നെ എടുത്തൊ രണ്ടാൾക്കും എടുക്കാന് സ്പ്രേ നല്ലത് നല്ലത് ഏതാ ഉള്ളത്

ഫോഗിന് എന്താണ് റേറ്റ് വരുന്നത്

ആണൊ ഞാൻ ഈ ഫോഗ് നിങ്ങളുടെ ഒരു പണി ചെയ്യ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എടുത്ത് വെച്ചൊ ഞാൻ എടത്തോളാം കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ലത് തോന്നുന്നത് ഒരു നല്ല സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചൊ അപ്പോൾ ഞാൻ ഒരു ഹാഫ് ആൻ ഹവർ ഉള്ളിൽ വേറെ അത് മതി നിങ്ങള് അതൊരു ഗിഫ്റ് പാക്കറ്റിൽ ആക്കിയിട്ട് വെക്ക് ഞാൻ ഒരു അര മണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങെത്തും ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ ശരി എന്നാൽ